ഇപ്പോൾ ആളുകൾ എന്താണ് കൈകൊണ്ട് തുന്നുന്ന വസ്ത്രങ്ങൾ നെയ്ത്തു വസ്ത്രങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നെണ്ടെങ്കിലും പക്ഷെ കൂടുതലായിട്ട് വാങ്ങാ റെഡി മേഡ് വസ്ത്രങ്ങളാണ് കാരണം എന്താണെന്നു വെച്ചാൽ റെഡി മേഡ് വസ്ത്രങ്ങൾക്ക് പൊതുവെ വില കുറവാണ് അത് മിഷനുകളൊക്കെ ഉണ്ടാക്കുന്നതിനെകൊണ്ട് അതിന്റെയൊക്കെ ഉണ്ടാക്കുന്ന ചിലവ് കുറവായതു കൊണ്ട് റെഡി മേഡ് വസ്ത്രങ്ങളൊക്കെ വളരെ വിലകുറവിൽ നമുക്ക് കിട്ടും പക്ഷെ കൈകൊണ്ട് നെയ്തു ഉണ്ടാക്കുന്ന പ്രവർത്തനഭാരം അത് കൈകൊണ്ട് കുറേ സമയം ഒക്കെ ചിലവാക്കിയിട്ട് ഉണ്ടാക്കുന്നതു കൊണ്ടു തന്നെ അതും കുറച്ച് വില കൂടുതലായിരിക്കും വില കൂടുതലാണെങ്കിൽ പോലും നല്ല കോളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും ഈ നെയ്ത് ഉണ്ടാക്കുന്നതൊക്കെ പൊതുവെ ഇപ്പം കാഞ്ചിപുരം പട്ടുസാരി പിന്നെ പുത്താമ്പുള്ളിന്ന് ഉണ്ട് പാലക്കാട് ജില്ലയിലൊക്കെ പുത്താമ്പുള്ളിയിൽ പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്തുള്ള നെയ്ത്തുഗ്രാമങ്ങളും അതൊക്കെ എപ്പോഴും ഭയങ്കര കച്ചവടം നടക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പോഴും ആളുകൾ എന്തുകൊണ്ട് അത് എടുക്കുന്ന എന്നുചോദിച്ചാൽ അത് അത്രയും ഗുണമേന്മയും ഉള്ളതുകൊണ്ടാണ് അപ്പോൾ റെഡി മേഡ് വസ്ത്രങ്ങളൊക്കെ എല്ലാം ഒരേ രീതിയിൽ ഉള്ള വസ്ത്രങ്ങൾ ഒരുമിച്ച് അടിച്ചിറക്കാ ചെയ്യാറുള്ളത് പിന്നെ ഇപ്പം ഇതെന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പറയുന്നനൂലുകൊണ്ട് നമ്മൾ പറയുന്ന രീതിക്ക് അത്രയും ശ്രദ്ധിച്ചിട്ട് ഓരോ അത് നെയ്തുവരുന്ന ഓരോ ഘട്ടങ്ങളിലും എന്തെങ്കിലും കുഴപ്പം ഉണ്ടോയെന്ന് നോക്കിയിട്ട് അത്രയും ഒരു കുഴപ്പമില്ലാതെ നെയ്തു വരിക ഇപ്പം നമ്മുടെ പേര് കൊടുത്തിട്ടുള്ളത് അങ്ങനെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന അതിൻ്റേതായ ഗുണമേന്മയും അതിൻ്റേതായ പരമ്പരാഗത ശൈലിയുണ്ട് അപ്പം കുറേ ആളുകൾ ഇപ്പോഴും കൈ കൊണ്ട് നെയ്തത് തന്നെയാണ് ഉപയോഗിക്കാറ് പിന്നെ റെഡി ഇതാകുമ്പോൾ എങ്ങനെ വെച്ചാൽ ഒക്കെ ഇങ്ങനെ ഒരു ഒരു നിശ്ചിത മാതൃകയിലുള്ളതായിരിക്കും അത് ഇപ്പോൾ നമ്മൾക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ ഒന്നും ഇല്ല അതേമാതിരി തന്നെ കെമിക്കലുകൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാകും എല്ലാം ചിലപ്പം നമുക്ക് കറക്റ്റ് അനുയോജ്യപ്പെട്ടത് അല്ലെങ്കിൽ പാകപെട്ട രീതിയിൽ ആകണമെന്നില്ല അവർ ഉണ്ടാക്കിയ ഒരു അളവുണ്ട് ആ അളവിൽ അടിച്ചിറക്കുന്ന കുറേയെണ്ണം അങ്ങനെ ഈ റെഡി മേഡ് ഉണ്ടാകുക ചിലപ്പം ചില ചിലതിനൊക്കെ ചില ഡാമേജ് ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ നെയ്ത്തിൽ അങ്ങനെ എന്താണ് കീറലോ അല്ലെങ്കിൽ വേറെ ഡാമേജുകളൊക്കെ വരാൻ വളരെ സാദ്ധ്യത കുറവാണ് പിന്നെ നമുക്കു തന്നെ പോയി പരിശോധിക്കാം ഇങ്ങനെ കെമിക്കലുകൾ ചേർക്കുന്നുണ്ടോ ഇങ്ങനെ ആരോഗ്യത്തിന് ഏറ്റവും നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ ചേർന്ന നല്ല നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായ സാധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് തുണികൾ നെയ്ത് നെയ്ത് ചെയ്യാറുള്ളത് പക്ഷെ റെഡി മെയ്ഡിന് ഇപ്പോഴും ആളുകൾ അതു തന്നെയാണ് ഇത്രയൊക്കെയാണെങ്കിൽ പോലും റെഡി മേഡ് സാധനങ്ങളാണ് കൂടുതൽ വാങ്ങുക ഇപ്പം നെയ്ത്തിൻ്റെ ആകുമ്പം എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സവിശേഷമായ പരിപാടിക്ക് ഇപ്പം കല്യാണങ്ങൾ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ മണവാട്ടികൾക്ക് അവർക്കൊക്കെ അവരുടെ ഒരു സ്പെഷ്യൽ അത് പ്രത്യേക ദിവസമാണല്ലോ ജീവിതകാലം മുഴുവനായിട്ടും അപ്പം അന്നത്തെ ദിവസത്തിന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഗുണമേന്മയുള്ള പരിശുദ്ധമായതും നമ്മൾക്കൊരു സങ്കൽപ്പത്തിന് പുറത്താണ് ഇപ്പോഴും നെയ്ത്തു സാധനങ്ങൾ വാങ്ങുന്ന പിന്നെ ഇതുകുറെ ആളുകളുടെ ഉപജീവന മാർഗ്ഗമാണ് അവരെ സഹായിക്കണം എന്നുള്ള രീതിക്കും ഇപ്പോഴും കുറേ ആളുകൾ ഇത് വാങ്ങുന്നുണ്ട്